ഇത് കോഴിക്കോട് റെസ്റ്റോറന്റ് ആണോ ഞാനേ ഒരു അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു സീഫുഡ് ഉണ്ട് അവിടെ എന്ന് അപ്പോൾ ആ ഈ സീഫുഡ് ഡിഷസ് എന്തൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്

ആ ഈ കക്ക ഇറച്ചിയൊക്കെ ഉണ്ടോ കക്ക അതൊരു ഫ്രൈ ചെയ്തപോലെയൊക്കെ ഒരു കക്ക ഫ്രൈ ഇല്ലേ ആ ആ

ആ ആ അപ്പോൾ അവിടെ വന്നാൽ അപ്പം തന്നെ നമ്മൾ എന്താണ് ഓർഡർ ചെയ്യുന്നത് അത് അപ്പം തന്നെ ഉണ്ടാക്കി തരുന്നത് അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി ആ ആ

പിന്നെ പാർസൽ കിട്ടുമോ അവിടുന്ന് ഞാനിവിടുന്ന് കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതാണ് ആ ആ

ആ അങ്ങോട്ട് വെ ആ അങ്ങോട്ട് വരാൻ എനിക്ക് എനിക്കൊരു പിന്നെ അവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം വരണം എന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു അഡ്വ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ വിളിച്ചു നോക്കിയതാണ് അവിടെ വന്നാൽ ആ റൂട്ടിൽ അല്ല പോവുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതിയെന്നുള്ള രീതിയിൽ വിളിച്ചതാണ് ആ ആ അ ആ പിന്നെ സീഫുഡ് അവിടുന്ന് വാങ്ങാൻ കിട്ടുവോ അല്ലെങ്കിൽ സീഫുഡിൻ്റെ ഐ ഡിഷെസ് മാത്രമേ കിട്ടുള്ളോ അല്ല സീ ആ ആ ആ ഫിഷ് ഒന്നും ഇല്ലല്ലേ ഫിഷ് ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ല അല്ലേ ആ ആ ആ ആ ഓക്കെ മ് പിന്നെ അതിൻ്റെ ആ എമൗണ്ട് ഒക്കെ എങ്ങനെയാണ് നല്ല റേറ്റ് വരുവോ ആ ആ ഓക്കെ മ് ആ ആ ആ നമ്മൾ കുറച്ച് ആൾക്കാർ ഉണ്ടാവും പത്ത് ഇരുപത് ആൾക്കാർ ഉണ്ടാവും ആ ആ ആ മ് ആ ലൊക്കേഷൻ ഇട് ആ ആ ഇട്ടുതന്നാൽ മതി ആ കറക്റ്റ് അറിയില്ല അങ്ങോട്ടേക്കുള്ള വഴി കറക്റ്റ് അറിയില്ല എന്നാൽ ലൊക്കേഷൻ ഇട്ടു തന്നേ മ് മ് ആ എന്നാൽ ഓക്കെ